പശുവിനെ നോക്കുകാന്ന് പറയുന്നത് ഒരു നല്ല ഒരു ജോലിയാണ് അത്യാവശ്യം നല്ല രീതിയിലൊരു പണിയുണ്ട് നമ്മൾ വെളുപ്പിനെ നാലു മണിക്കൊക്കെ എണിറ്റ് ചാണകമൊക്കെ വാരി കൂട് വൃത്തിയായി കഴുകി വൃത്തിയാക്കണം ആ ഒപ്പം പശുവിനെ ഒപ്പം കുളിപ്പിച്ച് വൃത്തിയാക്കണം അതിന് ശേഷം ഈ പണ്ടൊക്കെ കയ്യ് കൊണ്ടായിരുന്നു കറക്കുന്നത് ഇപ്പം മെഷീൻ വെച്ചാണ് കറക്കുന്നത് അത് ഫാമൊക്കെ ആകുമ്പോൾ കൂടുതലും പശുക്കളുള്ളപ്പോൾ ഒരു മനുഷ്യനെകൊണ്ടൊങ്ങും കറക്ക് നടക്കത്തില്ല അതാണ് പശുക്കളെ എല്ലാം കൂടെ കറക്കാനായിട്ട് മെഷീൻ വെച്ചാണ് കറക്കുന്നത് പിന്നെ കറന്നെടുത്ത് കഴിഞ്ഞിട്ട് ആ പാൽ അരിച്ച് നമ്മൾ സ്റ്റോറിൽ കൊടുക്കേണ്ടത് സ്ഥലത്ത് സ്റ്റോറിൽ ആണല്ലാതെ നമ്മൾ കൊടുക്കണം അതിന് ശേഷം അതിന് ശേഷം അതിൽ നിന്ന് കുടിക്കാനായിട്ട് ഒക്കെയുണ്ട് ഗോതമ്പ് ഉമിയൊക്കെ ഇട്ട് ചേർത്ത് അത് കാൽസ്യം പൊടിയെല്ലാം ചേർത്ത് അത് കുടിക്കാൻ വെള്ളം കൊടുക്കും അതിന് ശേഷം പുല്ലരിഞ്ഞ് കൊടുക്കും പുല്ലും വൈക്കോലും എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ ഉള്ള ഭക്ഷണം അത് ഓരോ പശുവിൻ്റെ ഇനം അനുസരിച്ച് ഇത്ര ഉള്ളൊരു വൈറ്റൊള്ള പശുവിന് ഇത്ര കിലോ തീറ്റന്നുള്ളൊരു കണക്കുണ്ട് ആ കണക്ക് പ്രകാരം നല്ല രീതിയിൽ കൊടുക്കണം അതിന് ശേഷം പറമ്പിലോട്ടൊക്കെ അഴിച്ചൊക്കെ കെട്ടാവുന്ന പശുക്കളാണെങ്കിൽ അങ്ങനെ അഴിച്ച് കെട്ടും അല്ലാത്ത പശുക്കളൊക്കെ കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മളൊരു ദിവസം മൂന്ന് നാല് പ്രാശേലും ചാണകോക്കെ വലിച്ച് മാറ്റി കൂടൊക്കെ വൃത്തിയാക്കേണ്ട കാര്യം ഉണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കണം കുഞ്ഞുങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ പാലൊക്കെ കുടിപ്പിച്ച് നല്ല രീതിയിൽ നോക്കണം